കോഴിക്കോട് ജില്ലയിലെ പ്രധാന കാർഷിക ഉത്പന്നങ്ങളും കൃഷി രീതികളും ഒക്കെ ഒരേ പോലെ തന്നെയാണ് എല്ലാ എല്ലാ ജില്ലയിലുള്ള പോലെത്തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ കൃഷി രീതിയൊക്കെ കൃഷി രീതിയെന്നു പറയുന്നതൊക്കെ കൃഷിയെന്നു പറഞ്ഞാൽ കൃഷിയായിട്ട് അവരങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കൂടുതലാളുകളും വിദേശത്ത് നിന്ന് അവിടെ നിന്ന് പണിയെടുക്കുകയാണ് ചെയ്യുന്നത് വിദേശത്താണ് കൂടുതലാളുകളും പിന്നെ സാധാരണക്കാരായ കുറച്ചാളുകൾ അവിടെ പെയിൻറിങ് ബിൾഡിങ് വർക്ക് അങ്ങനെയുള്ള എൻജിനിയറിങ് വർക്ക് അങ്ങനെയുള്ള വർക്കുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് കൃഷികളുടെ ഐറ്റം അങ്ങനെയൊന്നുമില്ല പെയിന്റിങ് പെയിൻറിങ് പെയിൻറിങ് വീട് കെട്ടൽ അങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ ഓട്ടോ ഓടിക്കുന്നവരുണ്ട് ടാക്സി ഓടിക്കുന്നവരുണ്ട് ബസ് ഓടിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകമായിട്ടുള്ള കൃഷി രീതികളൊന്നുമില്ല ഇതുതന്നെയാണ് എല്ലാ ജില്ലയിലുള്ള ആളുകളും എല്ലാവർക്കുമുള്ള ജോലിയെന്നു പറഞ്ഞാൽ ഇങ്ങനെത്തന്നെയാണ് പിന്നെയും പിന്നെ വേറെ ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് മൈസൂർ കർണാടക അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് കൃഷികൾ മാത്രമായിട്ട് ചെയ്യുന്നത് വേറെ ജോലി അങ്ങനെ കുറവാണ് എന്നാലും അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ കൃഷി മേഖലക്കാണ്